ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതൊക്കെ പരസ്യവഴികളിലൂടെയാണ് കൂടുതൽ ആള്ക്കാരിലേക്ക് എത്താൻ കഴിയുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ടി വിയിലൂടെയാണ് കാരണമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നുണ്ടെങ്കിൽ ആ സിനിമേനക്കാളും കൂടുതൽ പരസ്യമായിരിക്കും അപ്പോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അതായത് വളരെ സൃഷ്ടിപരമായ സ്വാധീനശക്തികളുടെ ഒരു പരസ്യത്തെക്കുറിച്ച് പറയാമോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൂടുതലും മറ്റ് ഏതാന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലുള്ള മറ്റെ സന്തൂർ മമ്മി മഞ്ഞളും ചന്ദനവും ഒത്തുചേരും സന്തൂർ ചർമ്മത്തിനഴകേകും വർഷാ വർഷം അപ്പം അതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ എല്ലാ സന്തൂർ മമ്മി അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എടുത്തിട്ടുണ്ടെങ്കിലും അമ്മമാർ ചെറുപ്പം ചെറുപ്പക്കാരാണെന്നുള്ള ഇതിൽ സന്തൂർ മമ്മി എന്ന് പറഞ്ഞിട്ട് കുറെ ആഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതെന്നെയാണ് വലുത് അതായത് അവരുടെ വിജയം അതായത് പരസ്യക്കാരുടെ വിജയം അതുതന്നെയാണ് കാരണം അവർ ഭയങ്കര തിങ്ക് ചെയ്തിട്ടാണ് അതായത് എന്താണ് ആൾക്കാരുടെ മനസ്സിലത് എത്തിച്ചേരണമെങ്കിൽ എന്ത് രീതിയിലാണ് എത്തിച്ചേരുക എന്നുള്ളത് അതായത് പരസ്യക്കാർക്ക് നാല്ലോണം അറിയാം അതുകൊണ്ടു തന്നെ വലിയ വലിയ ആൾക്കാരെ പോലെ തമന്ന വിജയ് അങ്ങനെ പിന്നെ ചന്ദ്രിക സോപ്പിൻ്റെ പരസ്യത്തിൽ ഇപ്പം കൂടുതൽ സോപ്പിൻ്റെ പരസ്യമാണ് കൂടുതലുള്ളതെന്ന് ബിസ്ക്കറ്റിൻ്റെ പരസ്യമൊക്കെ വളരെ കൂടുതൽ കുറവാണ് അങ്ങനെ അതായത് സോപ്പ് ചന്ദ്രിക സോപ്പ് അതായത് പിന്നെ നല്ലോണം വെളുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമല പോൾ പിന്നെ എന്താന്നു വെച്ചിണ്ടെങ്കിൽ സന്തൂർ മമ്മി എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി പി അമ്മയും കുട്ടിയും ആയിട്ട് അഭിനയിക്കുന്ന പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും സെയിം അതായത് വലിയ വലിയ നമ്മൾ അതായത് നമ്മളിപ്പോൾ വലിയ അതായത് ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കോലോ അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് നമ്മളൊരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ നമ്മൾ അവർ കാണുവാണെങ്കിൽ തന്നെ നമുക്ക് കടയിൽ പോയിട്ടൊണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പെട്ടന്ന് അതായത് നമ്മൾ അവരെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ അതാണ് നമ്മൾ ചിന്തിക്ക അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് പെട്ടന്ന് ഓർമ്മ വരും ഓ ഇത് നല്ല പ്രൊഡക്റ്റാണല്ലോ കാരണം ടി വിയിലൊക്കെ പരസ്യം വന്നതല്ലേ പിന്നെ അതുപോലെ തന്നെ പത്രത്തിലും പത്രത്തിലെ പരസ്യം അങ്ങനെ എല്ലാവരും ഒന്നും പത്രത്തിലങ്ങനെ വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചിലൊരൊക്കെ വായിക്കോളൂ അപ്പോൾ വായിക്കുന്നവരുടെ ഇതിൽ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ അതിന്നു നമ്മൾ അതാണ് നമുക്ക് പരസ്യം ഉണ്ടെങ്കിൽ നമ്മളത് ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും സാധനം മേടിക്കൂം ചെയ്യും ആ പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നല്ല കാര്യമെന്നാണ് നമ്മുടെയൊരു വിശ്വാസം